കഴിക്കാനുണ്ടോ ഫുഡ്ഡ് ഏതൊക്കെയാണ് ഉള്ളത് ഇവിടെ

ഓക്കെ ഓക്കെ യു ഗോട്ട് ഇറ്റ് ഓക്കെ ഓക്കെ

ഓക്കെ നിങ്ങൾക്കേത് വെജിറ്റബിൾ വെജിറ്റബിള് ഏതാണ് ഉള്ളത് ബിരിയാണി അപ്പോൾ ആ മാറും ലേശം മാറും

ആ ശരി ഓക്കെ വെജിറ്റബിള് മീൽസ് കൊണ്ടന്നാൽ മതി അത് ആ എക്സ്ട്രാ വേണ്ട അത് അതിൻ്റെ കൂട്ടത്തിലുള്ളത് ഉള്ള എല്ലാം മതി പായസം അതും ഇത് ടോട്ടൽ നല്ലതാണ് ആ അത് ഓക്കെ ഓക്കെ ആ ഓക്കെ കുടിക്കാൻ ആ ഓക്കെ മീൽസ് ഓ ഓ ഫ്രഷ് ലൈം വേണം ഫ്രഷ് ലൈമ് കൊണ്ടന്നാൽ മതി

വേണ്ട ആ ആ ആ അത് മതി അത് മതി ങാ ഓക്കെ ഓക്കെ